ഞാന് ഒരു ബൈക്ക് റെൻറ്റിന് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു എൻ്റെ പേര് അമൽരാജ് ഞാന് ഗോവയിലാണ് താമസിക്കുന്നത് വീട് കേരളത്തിൽ തന്നെയാണ് അപ്പോൾ ഞാനിപ്പോൾ അവിടെ മറ്റേ കേരളത്തിലേക്കു കുറച്ചു ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് വണ്ടി റെൻറ്റിന് എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടിരിക്കുന്നു അപ്പോൾ അതിന് എന്തൊക്കെ പ്രൂഫ് ആണ് ആവശ്യം എങ്ങനെ ഒരു രണ്ട് ആഴ്ചത്തേക്കാണ് വേണ്ടത് അതെ രണ്ട് ആഴ്ചത്തേക്ക് എത്ര ആയിരിക്കും പൈസ വരിക മൂവായിരം അല്ലെ അ ഓക്കെ ഓക്കെ അല്ല ഏതാ ബൈക്ക് ഏതാണ് ഉള്ളത് അവിടെ എനിക്കൊരു ഹിമാലയും പിന്നെ എൻ്റെ രണ്ട് മൂന്ന് കസിൻസുണ്ട് അവർക്കും ബൈക്ക് വേണമായിരുന്നു

അ ഓക്കെ ഓക്കെ അ അപ്പോൾ എന്തൊക്കെ ഐ ഡി ഐ ഡി പ്രൂഫ് എന്തൊക്കെ ആയിരുന്നു വേണ്ടത് അഡ്വാൻസ് ആയിട്ട് ഓക്കെ ഓക്കെ അ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് തരേണ്ടി വരും അല്ലേ അ അ അപ്പോൾ വണ്ടിയിൽ നമ്മള് ഹെൽമെറ്റ് അവിടുന്ന് മേടിക്കേണ്ടി വരുമോ അതോ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ ഇല്ലല്ലേ അപ്പോൾ അത് കൊണ്ട് വരേണ്ടി വരും അല്ലെ ഇപ്പോൾ കേരളത്തിലൊക്കെ രണ്ട് ഹെൽമെറ്റ് വേണം എന്നാണല്ലൊ അതാണ് ഞാൻ ചോദിച്ചത് കൊണ്ടുവരണം അല്ലെ അ എപ്പോഴൊക്കെ വണ്ടി അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ ഒന്ന് മുതല് ഓക്കെ ഓക്കെ എവിടെ ആയിട്ടാണ് ഷോപ്പ് എവിടെയായിട്ടാണ് ഉള്ളത് കൽപറ്റ അല്ലെ ടൗണിൽ തന്നെയാ അ അ ഐ ഡി കാർഡും ആധാർ കാർഡും ആണ് കൊണ്ടുവരേണ്ടത് അല്ലേ ഈ മൂന്ന് പേർക്കും ഐ ഡി കാർഡും ആധാർ കാർഡും വേണം അ അവിടെ ഓഫീസില്

അ ഓക്കെ ഓക്കെ എന്നാൽ ഞാൻ നാളെ ഞാൻ വരാം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ താങ്ക്യൂ